പടം വര എന്ന് പറയുമ്പോൾ എന്റച്ഛന് പടം വരയ്ക്കുവായിരുന്നു എന്റച്ഛന് കുഞ്ഞിലേ തൊട്ട് നന്നായിട്ട് പടം വരയ്ക്കുവായിരുന്നെന്ന് എല്ലാവരും പറയുന്നുണ്ട് അപ്പൊ ആ കഴിവ് എനിക്ക് കിട്ടിയിട്ടുണ്ടെന്നാണ് എന്റെ ഒരിത് കാരണം ഞാന് നന്നായിട്ട് പടം വരയ്ക്കുമെന്ന് എല്ലാവരും പറയും പടം വര കോമ്പറ്റീഷനിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് എനിക്ക് പ്രൈസ് കിട്ടിയിട്ടുമുണ്ട് പക്ഷേ എന്നെ ഇതുവരെ ആയിട്ടും പടം വരക്കാന് പഠിക്കാനായിട്ട് വിട്ടിട്ടില്ല ഞാന് പഠിക്കാൻ ശ്രമിച്ചിട്ടുവില്ല ഉള്ള കഴിവില് അഡ്ജസ്റ്റ് ആയിട്ട് ഞാന് പടം വരച്ച് വരച്ച് വരച്ച് ശരിയായിട്ടുള്ള ആളാണ് ഞാന് പടം വര എന്ന് പറഞ്ഞാൽ എന്റെ അമ്മ എനിക്ക് കുഞ്ഞിലേ തന്നെ ഡ്രോയിങ് ബുക്കും ഇതും കളറിങ്ങ് ബുക്സും കളറും ക്രെയോണ്സും പെൻസില് കളർ പെൻസില് സ്കെച്ച് ഒക്കെ മേടിച്ച് അത് സൂക്ഷിക്കാന് കൂടെ ഉള്ള ഒരു ഇത് കിട്ടും ഒക്കെ ഇപ്പോൾ കളറ് മേടിച്ച അത് സൂക്ഷിക്കണം ഞാന് പിന്നെ ഭിത്തിയേലൊന്നും വരക്കത്തില്ലാരുന്ന് ബുക്കിൽ തന്നെ ആയിരുന്നു വരക്കുന്നത് വ പിന്നെ അത് സൂക്ഷിക്കാനുള്ള ഒര് എബിലിറ്റി കൂടെ ആ കൂട്ടത്തിൽ എന്റെ അമ്മ എനിക്ക് തന്ന് പടം വര മാത്രവല്ല സൂ ആ പടം വരക്കുന്ന സാധനങ്ങള് സൂക്ഷിച്ചും കൂടെ വയ്ക്കുവായിരുന്നു പിന്നെ പിന്നെ പടം ലാസ്റ്റ് ലാസ്റ്റായിട്ട് വരച്ച പടം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഒര് ലൈബ്രറിയിൽ ചെന്നിട്ടുണ്ട് അപ്പം ആ ലൈബ്രറിയിൽ എം എന്വെയോമെന്റ ഡേനെ കുറിച്ചുള്ള ഒരു ഒരു ചിത്രം തയ്യാറാക്കാന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാന് വരച്ചത് ഒര് വീട് അവിടെ നാശം അലങ്കോലപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലം അതിന് തൊട്ട് ഇപ്പുറത്തായിട്ട് ശെ ഒരു പാര്ട്ട് പാര്ട്ടായിട്ടായിരുന്നു വരച്ചിരിക്കുന്നത് അതിന് എന്ത അത് കഴിഞ്ഞ് നല്ലൊരു പിക്ചർ അത് അ വീട് നല്ല വൃത്തി ഉള്ള പുഴ അത് മീനുകൾ ഒക്കെ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് എനിക്ക് സര്ട്ടിഫിക്കറ്റ് കിട്ടി രണ്ടാം സ്ഥാനവും കിട്ടിയായിരുന്നു പിന്നെ പടം വര എന്ന് പറയുമ്പം വരക്കും എന്നാൽ ഞാന് വരയ്ക്ക് എക്സ്പേർട്ട് ഒന്നും അല്ല ഞാന് വരക്കുവെന്ന് മാത്രമെ ഉള്ളു എന്നാണ് എന്റെ ഒര് ഇത് എന്തുവാണ് തോന്നല്